പണ്ടു കാലത്തു നമ്മൾ കിണറ്റിൽ കപ്പിയും കയറുമിട്ടാണ് വെള്ളമെടുത്തു കൊ ണ്ടിരുന്നത് ഇന്ന് ഇപ്പം നമ്മൾ കരണ്ട് വന്നു അത് കണ്ടുപിടിച്ചതോടുകൂടി നമുക്ക് സുഖമല്ലെ ഇട്ടേച്ച് ഒരഞ്ച് മിനിറ്റോ പത്തു മിനിറ്റൊ നോക്കി നമുക്കാവശ്യമുള്ള വെള്ളം കിട്ടും നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം ഒത്തിരിയേറെ സമയം ലാഭമുണ്ട് അതുവഴി ഒത്തിരി നന്മകളാണുള്ളത് മനുഷ്യന് പണ്ട് വ കൂടുതൽ വളരെയേറെ ജോലി ചെയ്യാൻ സമയം വേണ്ടിരുന്നെങ്കിൽ ഇന്ന് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റുണ്ടെങ്കിൽ നമുക്കത് വെള്ളം നിറച്ചിട്ട് നമ്മളുടെ എല്ലാ ജോലികളും ചെയ്യാം നമുക്കു പോകാനായിട്ട് എവിടെ വേണേലും പോകാൻ സാധിക്കും പിന്നെ തുണി അലക്കുന്നിടത്തോ അവിടിവിടെയൊക്കെ പണ്ട് എല്ലാവരും കോരിക്കൊണ്ട് നടക്കണമായിരുന്നു ഇന്ന് എൽ എവിടെ നിന്നാലും അവിടെ എല്ലാം നമുക്ക് വെള്ളം സ് പൈപ്പ് തുറന്നാൽ വെള്ളം കിട്ടുന്നൊരു സംവിധാനമാണ് പണ്ട് വളരെയേറെ മനുഷ്യർ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന സമയത്തിൽ നിന്നും ഇന്ന് വളരെയേറെ സൗകര്യമായിട്ടാണ് ഈ മോട്ടോറിൻറ്റുപയോഗം വഴി ആൾക്കാർക്കെല്ലാം ലഭിച്ചു മനുഷ്യർക്ക് ലഭിച്ചിരിക്കുന്നത് ആവശ്യത്തിന് എവിടെ തുണി അലക്കാനും പാത്രം കഴുകാനും ചെടികൾ നനയ്ക്കാനും നമുക്കു വെള്ളം പണ്ട് എടുത്തു കൊണ്ടു പോകേണ്ട സാഹചര്യത്തിൽ ഇപ്പം നമുക്കവിടെ നിന്ന് ഈ വെള്ളം വരുന്ന വഴി നമ്മുടെ ഇഷ്ടവ നമുക്കിഷ്ടത്തിന് എടുക്കുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യാം